ആ അതെ അല്ലെ ആ

നീയ് ഇത് എങ്ങനെയാണ് ഈ ഇത് നിങ്ങൾ ആ വാർപ്പ് രണ്ട് നില രണ്ടായിരം സ്ക്വയർ ഫീറ്റ്

ഒരേക്കർ ഒരേക്കർ സ്ഥലം അവിടെ ആദായം ആദായം ഉള്ളതാണോ ആ കണ്ടവോ കര അങ്ങനെ അങ്ങനെയല്ല

അതെ ആ ഒരേക്കർ സ്ഥലത്തോളം വേണം അല്ലേ ആ നമുക്ക് ഉണ്ട് അടുത്ത് ഇവിടെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ വിൽക്കാനായിട്ട് കിടപ്പുണ്ട് നമ്മുടെ അടുത്ത് ഒരു ഒരേക്കർ ഒരേക്കർ മിച്ചമുള്ള സ്ഥലങ്ങൾ ഒരു ഒന്ന് ഒരേക്കർ ഇരുപത് സെൻറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കിടപ്പുണ്ട് അ അത് നിരപ്പ് സ്ഥലം ആകുമ്പോൾ ഇത് ഒരു കുറച്ച് ഒരു അര ഏക്കറോളം കണ്ടമാണ് ബാക്കി ഒരു സ്ഥലം അത് അതെ വെള്ളം ബോർവെൽ എടുത്തിട്ടുണ്ട് കുഴൽ കിണറുണ്ട് ആ റോഡ് വീട്ടിൽ വെള്ളം കുളം കുത്താനുള്ള സ്ഥലം ഉണ്ട് കണ്ടം ഉണ്ട് ഒരേക്കർ കണ്ടമാണ് അതിനകത്ത് കുളം കുത്താൻ വെള്ളം ഇഷ്ടംപോല കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാ നമുക്ക് അത് വേണേൽ നോക്കാന്ന് അത്രേ ഉള്ളൂ വീട് കുഴപ്പം ഇല്ല ഒരൊറ്റ നില വീടാണ് വാർപ്പ് വീടാണ് വീട് പണിതിട്ടൊരു നമ്മൾ ഒരു അഞ്ച് എട്ട് വർഷത്തോളം ആയതാണ് ഒരു വീടാണ് കുഴപ്പം ഇല്ലാത്ത ആ കുഴപ്പം ഇല്ല നല്ല വീടാണ് ഒരു നാല് ബെഡ്റൂമും ഹാളും കിച്ചനും ഒക്കെയുള്ള ഒരു ഒരു കുഴപ്പം ഇല്ലാത്ത ആ എന്നാ രണ്ട് വാ എന്നാ ബെഡ്റൂം അറ്റാച്ച്ഡ് പിന്നെ ഒര് പിന്നെ ആ പിന്നെ ഒരു കോമൺ ടോയിലറ്റ് പിന്നെ പിന്നെ ഇത് ആദായമെന്ന് പറഞ്ഞാൽ ഏലവാണ് ഏലം പിന്നെ കുറച്ച് ജാതിയുണ്ട് എല്ലാം അത് ബോർവെൽ കുരുമുളക് കുറവാണ് കുരുമുളകൊന്നും അങ്ങനെ ഇല്ല ഇല്ല ഏലവും ജാതിയാണ് കൂടുതൽ ആയിട്ടുള്ളത് പിന്നെ അതെ ആ അങ്ങനെയുള്ള നമുക്ക് കാണും ഉണ്ട് നമുക്ക് നോക്കാം ആ നമുക്ക് നോക്കാം അങ്ങനെയുള്ള വീടുകളുണ്ട് അങ്ങനെയൊരു അന്നേരം സ്ഥലം ഇച്ചിരി ഒരേക്കർ തന്നെ സ്ഥലം വേണമെന്നുണ്ടോ കുറഞ്ഞാലും കുഴപ്പം ഇല്ല ആ അങ്ങനെ ഉള്ള ഉണ്ട് സ്ഥലം കിടപ്പുണ്ട് ഒരു എൺപത് സെൻറ്റ് വീട് സ്ഥലവും ഒരു രണ്ട് നില വീടുവായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് ആ ഒരേക്കർ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത്

ബസ് റൂട്ട് ബസ് റൂട്ട് മെയിൻ റോഡ് സൈഡ് മെയിൻ മെയിൻ റോഡ് സൈഡ് ആണ് അത് അതിനകത്ത് മൊത്തം ജാതി മാത്രമേ ഉള്ളൂ വേറെ കൃഷികളൊന്നും ഇല്ല പട്ട ഉള്ള സ്ഥലങ്ങളാണ് പട്ട ഉള്ള സ്ഥലങ്ങളാണ് പല പട്ടയാണ് നിങ്ങൾക്ക് അത് വേണേൽ നമുക്ക് ഒന്ന് നോക്കാം നല്ല എന്നാൽ അ അതൊരു നാല് നാല് വർഷത്തോളം ആയതേ ഉള്ളൂ വീട് പണിതിട്ട് നല്ല ഒരു ആ രണ്ട് നില വീടാണ് അത് നല്ല വീടാണ് കുഴപ്പം ഇല്ലാത്ത കുഴപ്പം ഇല്ല അത് പണിയെല്ലാം പൂർത്തീകരിച്ച വീട് വെള്ളം ഉണ്ട് വെള്ളം ആ കുഴൽ കിണറെടുത്തിട്ട് ഉണ്ട് ആ പിന്നെ മെയിൻ റോഡ് സൈഡാണ് ഞങ്ങൾ ആ ആ വീട് വീടിൻ്റെ പുറകോട്ട് സ്ഥലം എൺപത് സെൻറ്റ് സ്ഥലം നല്ല അത്യാവശ്യം ഉള്ള നല്ല സ്ഥലമാണ് നമുക്ക് വീതി ഉള്ള സ്ഥലമാണ് എൺപത് സെന്റ് ഉണ്ട് നമുക്ക് എപ്പോളാണെങ്കിലും നമുക്ക് പോയി നോക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതെ ഉള്ളൂ

ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ എല്ലാം കണ്ടിട്ട് നമുക്ക് നോക്കി ആ താഴെ വേറെ സ്ഥലങ്ങൾ കിടപ്പുണ്ട് നമുക്ക് ഇവിടെ വേറെ ഒരു ആ അറുപത് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് അതും ഒറ്റ നില വീടാണ് നമുക്ക് നോക്കി ഏതാണെങ്കിലും അത് എല്ലാം കണ്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് വന്നാൽ മതി എന്നാണ് വരുന്നത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് ഒരു ദിവസം വന്ന് നോക്കിയിട്ട് എല്ലാം കൂടെ ഒരു മൂന്ന് നാലു സ്ഥലങ്ങൾ ഉണ്ടി നോക്കിയിട്ട് നമുക്ക് നല്ലത് നോക്കി ഏതാണിഷ്ടപ്പെട്ടത് നോക്കി നമുക്ക് അത് ആ ഇന്ന ചെയ്യാവുന്നതെ ഉള്ളൂ നമുക്ക് നോക്കിയേക്കാം ഓക്കെ ഓക്കെ അവരും ആയിട്ട് ഞാൻ വിളിച്ചോളാം വിളിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയി നോക്കി എല്ലാ റെഡി ആക്കാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ